ഹലോ ഹലോ ലയോള സ്കൂൾ പ്രിൻസിപ്പാൾ ജിൻസി ജോസഫ് അല്ലേ ഹലോ ലയോള സ്കൂൾ ഹലോ ലയോള സ്കൂൾ പ്രിൻസിപ്പാൾ ജിൻസി ജോസഫ് അല്ലേ ഞാൻ ഫൈവ് സീയിൽ പഠിക്കുന്ന വെറോണിക്കേടെ അമ്മയാണേ ആ മോൾക്ക് ഒരു വൺ വീക്ക് ലീവ് എടുക്കാനായിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻറ്റും പിന്നെ ഹസ്ബൻറ്റിൻ്റെ കസിൻസുമായിട്ട് മൂന്ന് വർഷങ്ങൾക്കു ശേഷം നാട്ടിൽ വരുവാ അപ്പോൾ ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഔട്ടിങ്ങിന് പോവാൻ വേണ്ടി ഇങ്ങനെ ലീവ് എടുക്കാനായിരുന്നു ഒരാഴ്ച അപ്പം മേം ഇങ്ങനൊരു ലീവ് തരുമോ മേം അത് ആ മേം ഇപ്പോൾ മേം ഞങ്ങൾ നോട്ട് ഒക്കെ ഞാൻ നോക്കി എഴുതി കൊടുത്തോളം മേം നോട്ട് ഞങ്ങൾ മേടിച്ചോളാം അത് കുഴപ്പം ഇല്ല മൂന്ന് വർഷം ഇങ്ങനെ പോയിട്ട് ഹസ്ബൻറ്റും പിന്നെ കസിൻസുമായിട്ട് ഇങ്ങനെ വരുമ്പം മോളെ മാത്രം എങ്ങനെയാ മാറ്റി നിർത്തുന്നത് അതുകൊണ്ടാ പിന്നെ ഞാൻ അങ്ങനെ കരുതിയത് അയ്യോ ഞാൻ എനിക്ക് അറിയുന്നുള്ളപോലെ ഞാനും മോൾക്ക് പറഞ്ഞ് കൊടുക്കാം ഇപ്പോൾ ഹസ്ബൻറ്റും കാസിനസുമായിട്ട് ഇങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് മോളെ മാത്രമായിട്ട് ഞാൻ എവിടെ മാറ്റി നിർത്താനാ അതാ പിന്നെ മേം ഞാൻ വൺ വീക്ക് ആ മേം ഞാൻ വൺ വീക്ക് അല്ലേ ചോദിക്കുന്നത് കുഴപ്പം അല്ല അതൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തോളം മാർക്ക് ഈ പേരിൽ ഇതിൻ്റെ പേരിൽ എന്തായാലും മാർക്ക് അവൾക്ക് കുറയത്തില്ല ആ ഞാൻ അങ്ങനെ ഞാൻ അവളെ ഹാർഡ്വർക്ക് ചെയ്ത് ഞാൻ പഠിപ്പിച്ച് കൊടുത്തോളം മേമ് എങ്ങനെ നോക്കിയാലും ഒരു വൺ വീക്ക് ലീവ് മേം തരണം പ്ലീസ് ആ കുറക്കാൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പാരിസിലോട്ട് ഇങ്ങനെ പോവുന്ന കാര്യമാ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെ പോയാലും ഒരു വൺ വീക്ക് എടുക്കത്തില്ലേ എന്തായാലും ടൂ വീക്കില് പറഞ്ഞാൽ പിന്നെ എക്സാമ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വൺ വീക്കിൽ ആക്കിയെ അപ്പോഴത്തേക്കും ചേട്ടായിയും കസിൻസും പിന്നെ തിരിച്ചങ്ങ് പോവും പിന്നെ ഞങ്ങൾ ഞാനും കൊച്ചും മാത്രായിപ്പോവും പിന്നെ അവളെ മാത്രം മാറ്റി നിർത്താമെന്നു പറഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും റിലേറ്റീവ്സിൻ്റെ വീടില്ല അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാലും പിന്നെ സ്കൂൾള് വരാൻ പറ്റത്തില്ല എങ്ങനെ നോക്കിയാലും അല്ലെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അവർ വന്നിട്ട് പോവും അവരിവിടെ രണ്ട് വീക്കേ ഉണ്ടാവത്തുള്ളൂ പിന്നെ അവരിങ്ങ് പോവുമ്പഴത്തേക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യും എക്സാം എഴുതാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാ മാം എങ്ങനെയും നോക്കി ഒരു വൺ വീക്ക് ലീവ് തരണം പ്ലീസ് മാം

ഓക്കെ മേം ഞാൻ മോൾക്ക് വേണ്ടി നോട്ട് ഒക്കെ ഞാൻ എഴുതി കൊടുത്തോളാം വെറോണിക്കേടെ നോട്ട് തിരിച്ചു വരുമ്പം എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കും ഞാൻ അവൾക്ക് വിട്ടുപോയ പോഷൻസ് ഒക്കെ ഞാൻ എനിക്ക് അറിയുന്നുള്ള പോഷൻസ് ഒക്കെ ഞാൻ അതുപോലെ ഞാൻ പറഞ്ഞു കൊടുക്കാം ആ ഓക്കെ ആ ഓക്കെ താങ്ക് യു മാം ആ ഓക്കെ മാം പ്രിപ്പേർ ചെയ്യിപ്പിക്കാം ഓക്കെ താങ്ക് യു മാം